ഇപ്പോൾ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് പലതരം സൈക്കിളിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സൈക്കിൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ളൊരു സാധനം ആയിരുന്നു ഞാൻ പണ്ട് പത്താംക്ലാസിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങി തരുന്നത് അപ്പം തൊട്ട് ഞാൻ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്ന സൈക്കിൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പലതരം സൈക്കിൾ ഉണ്ട് അതായത് ഇപ്പോൾ ഹെർക്കുലീസ് ഉണ്ട് അങ്ങനെ പിന്നെ പുതിയ പുതിയ മോഡലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം പത്ത് പതിനയ്യയിരം രൂപേൻ്റെ ഒന്നരലക്ഷം രൂപേൻ്റെ അഞ്ച് ലക്ഷം രൂപേൻ്റെ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സൈക്കിൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അപ്പം നല്ല ഒരു സൈക്കിൾ തന്നെയാണ് എൻ്റെ ഒരു സ്വപ്നം എന്നുപറഞ്ഞ് കഴിഞ്ഞാല് ഏകദേശം ഒരു രണ്ടു മൂന്നു ലക്ഷം രൂപേൻ്റെ സൈക്കിളൊക്കെ വാങ്ങാൻ ആണ് എനിക്കൊരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ നമുക്ക് പോവാൻ ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങാൻ ആണ് എനിക്ക് ആഗ്രഹം കാരണം നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സുഖമുള്ളത് അതുമാത്രമാണ്